ഉച്ചയൂണിന് നമ്മൾ ചോറ് തന്നെയാണ് ചോറി ഒരു ഉപ്പേരി ഉണ്ടാകും ഒരു ഒഴിച്ചു കറിയുണ്ടാകും മിക്കതും ഒരു പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാകും പിന്നെ ചിലപ്പോൾ സൺഡേസിലൊക്കെ മീനുണ്ടാകും ചിക്കനുണ്ടാകും അത്താഴത്തിന് ചോറ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ് എന്തെങ്കിലും വല്ല എക്സാ എക്സട്രാ വല്ല പപ്പടമോ മൊട്ടയോ അങ്ങനെ ഉണ്ടാകും വല്ല ചമ്മന്തിയെങ്കിലും ചെയ്യും പിന്നെ ഏറ്റവും ചിലപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയെങ്കിലും ഉണ്ടാക്കും രാത്രി അല്ലെങ്കിൽ കൊള്ളി പുഴുങ്ങി കൊള്ളിയും ചമ്മന്തിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമ്മൾ വീട്ടിലുള്ള ഭക്ഷണം തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കാറ്